അതെ

അതെ അത് നമുക്ക് എവിടെ ഏത് പാർട്ട് വേണം റോഡ് സൗകര്യം ഉള്ളിടത്ത് വേണോ

അപ്പോൾ എത്ര വരെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവിടെ റോഡ് റോഡിന് ഇച്ചിരി ഉള്ളിലോട്ടൊക്കെ കയറി ആണേൽ സെന്റിന് രണ്ട് ലക്ഷം രണ്ടര ലക്ഷം മൂന്ന് ലക്ഷമൊക്കെ വരുന്നുണ്ട് ആ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ റോഡ് സൗകര്യം ഉള്ളതാണ് റോഡിന്റെ ഒട്ടും അല്ല അങ്ങോട്ട് ഉളിലോട്ട് കയറിയൊക്കെ ഉള്ളത് കിട്ടും ആ വണ്ടി പോരാൻ പറ്റുന്ന സൗകര്യം ഉള്ളത് വണ്ടി വരാൻ പറ്റുന്ന സൗകര്യം

ആ അതാവുമ്പോൾ ഒരു ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ ചുറ്റളവിൽ വരുന്നതാണ് സ്കൂളൊക്കെ ആ

അപ്പോൾ മെയിൻ മെയിൻ റോഡിൽ രണ്ടരയൊക്കെ വരുന്നുണ്ട് റോഡ് അല്ലാതെ റോഡിന് അല്ലാത്ത കരയിലോട്ട് പോവുമ്പോൾ ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷത്തിനൊക്കെ കിട്ടുന്നു അപ്പോൾ നിങ്ങൾക്ക് യാത്ര അപ്പോൾ ഒരിച്ചിരി പ്രയാസമായിരിക്കും ആ ബോട്ട് സൗകര്യം ആയിരിക്കും കൂടുതൽ വണ്ടി സൗകര്യത്തിന് പിന്നെ വരണം അത് വരാലോ അതാ ഞാൻ പറഞ്ഞേ മൂന്ന് മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ ആലപ്പുഴയിലെ ടൌണിൽ ഇച്ചിരി ഉളളിലോട്ട് ഒക്കെ കയറി വണ്ടി വരാൻ സൗകര്യം ഉള്ളത് സ്ഥലവായിട്ടുള്ളതുണ്ട് കെട്ടിടം വീടായിട്ട് ഉള്ളത് സെന്റിന് സ്ഥലത്തിന് മാത്രം ആ ആ ഒരു സെന്റിന് ഒരു സെന്റിന് മൂന്നു ലക്ഷം ആ അതെ അതെ അല്ല നിങ്ങൾക്ക് ഇത് അറിയാൻ മേലാത്തോണ്ടാ അത് നമുക്ക് ആ അത്യാവശ്യം നിങ്ങൾ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എത്രവരെയാണെങ്കിൽ പ്രതീക്ഷിക്കുന്നൂന്ന് പറഞ്ഞത് ഇല്ല ഇല്ല നമുക്ക് മുൻപ് അത് തരത്തില്ല നിങ്ങൾക്ക് നിങ്ങൾ തരണ്ട കണ്ട് ഇഷ്ടട്ടപ്പെട്ട് അത് തരത്തില്ല അത് തരാൻ പറ്റത്തില്ലല്ലോ എന്റെ സഹോദരി എന്റെ സഹോദരി നമ്മൾ പറഞ്ഞ് ഇവിടെ ടൌണിനേരിയേ കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടര മൂന്നുലക്ഷം ആവും അപ്പോൾ അത് നമുക്ക് ശകലം വില പേശി ഈ തുകയ്ക്കുള്ളിൽ ഇട്ടു തരാം വില പേശിയാലേ ഉള്ളൂ ഈ മൂന്ന് എന്നുള്ളത് ഇച്ചിരി താഴത്തോളളു അത് സംഭവം ശരിയാണ് സ്ഥലം കാണണമെങ്കിൽ സ്ഥലം കണ്ടിട്ട് ഞാൻ ചോദിച്ചത് അതല്ല നിങ്ങൾ ഞാൻ ചോദിച്ചത് അതല്ല ഞാൻ ഞാൻ ചോദിച്ചത് അതല്ല നിങ്ങൾ എത്ര രൂപ വരെ പ്രതീക്ഷിക്കുന്നേന്നാ ചോദിച്ചത് സെന്റിന് എത്ര രൂപ വരെ

ആ അത് ഈ ഇത് ഇതല്ലേ നിങ്ങളുടെ വാ വാട്ട്സ്ആപ്പ് നമ്പർ ഇതിലോട്ട് ഇട്ട് തരാം

ഓക്കെ സ്ഥലം ഉണ്ട് സ്ഥലവും പെരയും ഉള്ളതും ഉണ്ട് കേട്ടോ